കേരളത്തിൻ്റെ തനതായ വസ്ത്രധാരണം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ പാവാടയും ബ്ലൗസും ഇടും ആൺകുട്ടികൾ കുർത്ത മുണ്ട് ഷർട്ട് അങ്ങനെ ഒക്കെയാണ് ആൺകുട്ടുകൾ ചെയ്യണേ അമ്മമാരാണെങ്കിൽ സെറ്റ് സാരി സെറ്റ് മുണ്ട് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കും പിന്നെ അച്ഛന്മാരും മുണ്ടും ഷർട്ടുമൊക്കെയാണ് ധരിക്കാറ് പിന്നെ ആഭരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അന്നത്തെ പണ്ടത്തെ ആഭരണങ്ങൾ കുടിക്കി മാല എന്നൊക്കെ പറഞ്ഞാൽ തിളക്കത്താലി മുത്തരഞ്ഞാണം പാലക്കാ മാല പിന്നെ കയറ് പിരി അങ്ങനെ ഒക്കെയുള്ള ഒരു തരം മാലകൾ ഒക്കെയാണ് അന്നത്തെ ആചാരങ്ങളിൽ ഇട്ടിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ വല്ല കല്യാണങ്ങൾക്കൊ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഇങ്ങനയുള്ള ആഭരണങ്ങൾ ഇടുവുള്ളു പിന്നെ ഇപ്പം അതിലും വളരെ വ്യത്യാസമായി കുട്ടികളൊക്കെ ആഭരണമൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾക്കൊന്നും ഇപ്പം ആഭരണങ്ങൾ വേണ്ട ഒക്കെ റെഡി മെയിഡാണ് ധരിക്കുന്നതും